അതായത് എനിക്കെന്നെ എനിക്ക് എന്ന് വെച്ചിട്ട് ഉണ്ടെങ്കില് എനിക്ക് ഒരു ഗവൺമെൻറ്റ് ജോലി കിട്ടണമെന്ന് ആണ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഇപ്പമെന്ന് വച്ചിട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു അക്കൗണ്ടൻറ്റ് ആയിട്ട് ആണ് വർക്ക് ചെയ്യുന്ന അപ്പം ഗവൺമെൻറ്റ് ജോലിയാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം അപ്പംന്ന് വെച്ചിട്ട് ഉണ്ടെങ്കില് ഹ്മ് ഗവൺമെൻറ്റ് ജോലി ആണെൽ നമുക്ക് ജീവിതകാലം മുഴുവൻ അത് ഒര് സേഫ്റ്റി തന്നെ ആണ് കാരണം എന്താന്ന് വച്ചിട്ട് ഉണ്ടേൽ നമുക്ക് ഇപ്പം ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുമ്പം ചിലപ്പം നമ്മൾ മരിക്കുകയോ എങ്ങാനും ചെയ്താൽ നമുക്കും മക്കൾക്കും നമ്മളുടെ അമ്മയ്ക്കും അച്ഛനും അതായത് ഇങ്ങനെ ജോലി കാര്യങ്ങൾ ഒക്കെ കിട്ടും പിന്നെ നമുക്ക് അഥവാ ഒന്നും സംഭവിച്ചില്ലെൽ നമുക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് നല്ലൊരു പ്രൈസ് കിട്ടും പിന്നെ നമുക്ക് ജോലി ചെയ്യിന്നേന് ഇടയിൽ തന്നെ പി എഫ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ പിടിക്കും അപ്പം ആ പൈസ ഒക്കെ നമുക്ക് അതായത് റിട്ടയേർഡ് ആവുമ്പം നല്ലൊരു പൈസ കിട്ടും നമ്മക്ക് പത്ത് അറുപത് ലക്ഷം എഴുപത് ലക്ഷത്തിന് മേലെ കിട്ടും അപ്പം അത് ഒക്കെ ഒര് പൈസ തന്നെ ആണ് അപ്പം നമുക്കെന്ന് വച്ചിട്ട് ഉണ്ടെങ്കില് മെയിൻ ആയിട്ട് ഇത് കിട്ടി കഴിഞ്ഞന്ന് കിട്ടാൻ നല്ല പാടാണ് നമ്മൾ അത്യാവശ്യം നല്ലോണം പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പം അത് പലര് പഠിച്ച് എഴുതിയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ഒക്കെ നമ്മുടെ ഭാഗ്യം പോലെയെ കിട്ടുള്ളൂ എന്ന് വച്ചാൽ ഇത് കിട്ടാൻ ഭയങ്കര പാടാണ് എന്നാലും ഇനി ഞാൻ അത് പഠിക്കുന്നുണ്ട് എനിക്ക് അത് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ആണ് എനിക്ക് എൻ്റെ കരിയറില് ഞാൻ നല്ലൊരു ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥ ആവണന്ന് ആണ് എൻ്റെ വലിയ ഒര് ആഗ്രഹം അതിന് ഞാൻ ഒരുപാട് പിന്നെ ഞാന് പ്രയത്നിക്കുന്നും ഉണ്ട്